അതായത് പൂന്തോട്ട കൃഷിയിൽ ഏതെങ്കിലും തരം ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വളകൾ വിളകൾ നശിപ്പിക്കുന്ന കൃമി കൃമികീടങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സന്ദർഭം ഒരുപാട് വന്നിട്ടുണ്ട് കാരണമെന്താ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെടിയൊക്കെ നടുമ്പോഴും ഇപ്പോൾ നമ്മൾ എന്ത് നടുകയാണെങ്കിലും കീടങ്ങളെന്നു പറഞ്ഞ സംഭവം നമുക്ക് വരുന്നത് സ്വാഭാവികമാണ് ഇപ്പം നമ്മൾ പൂച്ചെടിൻ്റെ കാര്യത്തിൽ പറയാം അപ്പോൾ പൂച്ചെടിൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞാൽ അതൊരു വിധം അതായത് നല്ലവണ്ണം തളിർത്ത് ഇതൊക്കെ ആയി വരുമ്പം ചിലപ്പം ഈ ഒരു സൈസ് പച്ച പുഴു വലിയൊരു പുഴുവൊക്കെ വരും അത് ഇലയൊക്കെ തിന്നുകളയും പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ ഇപ്പോൾ ഞണ്ടു കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമൊക്കെയാണെങ്കിൽ ഈ ഞണ്ട് വന്നിട്ട് അതിൻ്റെ വേര് വേരിൻ്റവിടെ പോയിട്ട് മാന്തിയിടും അല്ലെങ്കിൽ ഇപ്പോൾ എലി ഉണ്ടെങ്കിൽ എലി അതിങ്ങനെ കുഴിച്ച് കുഴിച്ച് നോക്കും അപ്പോഴെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വേരും അതൊക്കെ ഇളകും പിന്നെയെന്നു വെച്ചാൽ ആ ചെടി നശിച്ചുപോകും അപ്പോഴെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിനുള്ള വളങ്ങൾ കാര്യങ്ങൾ ഒക്കെ അതായത് നമുക്ക് പുഴുവിനെയൊക്കെ കളയാനാണെങ്കിൽ നമുക്ക് ചുണ്ണാമ്പ് വെള്ളം സ്പ്രേ ചെയ്താൽ മതി ചെടികളിൽ അപ്പോൾ പുഴുക്കളൊന്നും അങ്ങനെ വരില്ല പിന്നെ ഞണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടേ നമ്മൾ വേറെ എന്തെങ്കിലും ഞണ്ടിനും എലിനെയൊക്കെ ആണെങ്കിൽ എലിക്കൊക്കെ വേറെ എന്തെങ്കിലും വിഷമോ കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് അങ്ങനെയൊക്കെ നമ്മൾ നല്ലവണ്ണം പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു തോട്ടക്കൃഷി പിന്നെ നടത്താൻ സാധിക്കൂ